ആ ഇത് അർഷയല്ലേ ആ ഞാനേ അവിടെ ജി സി എമ്മിൽ പഠിച്ചിട്ടുണ്ടായിരുന്ന ഒരു രമണിയാണ് ആ ഞാനവിടെ പഠിച്ച് ഇറങ്ങിയിട്ടിപ്പോൾ കുറേ വർഷമായി അപ്പോൾ കോളേജിൻ്റെ മുന്നിലൂടെ പാസ് ചെയ്ത് പോയപ്പോൾ അവിടുത്തെ പഠിക്കുന്ന ആരുടെയെങ്കിലും നമ്പർ കിട്ടുമോ അന്വേഷിച്ചപ്പോൾ നമ്പർ കിട്ടിയപ്പോൾ വിളിച്ചതാണ്

ഞാൻ മലയാളം ആയിരുന്നു ഞാൻ എൺപതിലെങ്ങാണ്ടായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ തിരക്കിലാണോ ആ ഒന്നുമില്ല നമ്മൾ ഇങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ രൂപീകരിച്ച കോളേജ് ആണല്ലോ അപ്പോൾ ഇപ്പം എന്തൊക്കെയാണ് മാറ്റങ്ങൾ വന്നു എന്നൊക്കെ വെറുതെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടേ ഞാനിവിടെ പാസ് ചെയ്ത് പോയി എന്നല്ലാതെ കാണാനൊന്നും പറ്റിയില്ല ഇപ്പം അവിടെ എത്ര ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് ആണല്ലേ എല്ലാത്തിലും പി ജി ഒക്കെ ഉണ്ടോ

ആ ഓക്കേ ഓക്കേ ഇയാൾ ഏത് ഡിപ്പാട്ട്മെൻറ് ആണ് ആണല്ലേ അവിടെ ഇപ്പോൾ ഒരു ഗോപു മാഷ് ഒക്കെ ഉണ്ടോ ആണല്ലേ ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് സാർ വരുമായിരുന്നു ഇപ്പോൾ പോയല്ലേ അതെ അതെ അതെ അതെ അതെ അതെ അവിടെ ഇപ്പം ഇപ്പം ആരൊക്കെയാണ് അവിടെ മാഷുമാരായിട്ട് ഉള്ളത് ഓ ഓക്കേ ഓക്കേ അവരൊക്കെ ഉണ്ടല്ലേ അവിടെ ഞാൻ ഇപ്പം ഇന്നാൾ പത്രത്തിലൊക്കെ കണ്ടു അവിടെ എന്തൊക്കെയോ ഹോസ്റ്റൽ വന്നു എന്നൊക്കെ അത് എവിടെയായിട്ടാണ് ഹോസ്റ്റൽ അത് ഉണ്ടാക്കിയിട്ടുള്ളത് ഇല്ല ഇല്ല ആണല്ലേ അപ്പം അവിടെ എങ്ങനെയാണ് ഒരു പ്രൈവസി ഒക്കെ ഉണ്ടാവുമോ കുട്ടികൾക്ക് ഓ ഓ ഓ ആ അതെ അല്ലേ അതുപോലെ അക്കേഷ്യ ഒക്കെ ഉണ്ടോ ഇപ്പോഴും അവിടെ മരങ്ങളൊക്കെ എന്താണതിന്റെ അവസ്ഥ ഓക്കേ ഓക്കേ അപ്പോൾ ഏതായാലും സംസാരിക്കാൻ പറ്റിയതിൽ വലിയ സന്തോഷം അപ്പോൾ ഇനി വരുമ്പോൾ കാണാം കേട്ടോ ഓക്കേ ഓക്കേ ആ ശരി